ആ ഓ റെസ്റ്റോറൻറ്റ് അല്ലേ ആ ഞാൻ ഒരു പാർസലിന് വേണ്ടീട്ട് ആയിരുന്നു റംഷീന കോഴിക്കോട് താമരശ്ശേരി ഏഹ് മീൻ കറി സ്പെഷ്യൽ എന്ത് ഒക്കെയാണ് ഉള്ളത്

ആ പുഴ മീൻ എങ്ങനെയാണ് ഇരുന്നൂറ്

പുഴ മീൻ ആ പുഴ മീൻ കറി ആണ് ഓ ഫ്രൈയ്യാ ഫ്രൈ മതി ഓക്കെ ഒന്ന് മതി ഓ വേണ്ട വേണ്ട ഓക്കെ ഇപ്പോൾ ഫിഷ് മതി ആ വേണ്ട മീൻ കറി മീൻ

ഇല്ല ഇല്ല ഇല്ല വേണ്ട വേണ്ട അത് മതി പുഴ മീൻ ആ

റേറ്റ് ആ അതെ അതെ

ആ ഓക്കെ ഓക്കെ താങ്ക് യൂ